എൻ്റെ ചെടികളൊക്കെ ഞാന് നേഴ്സ്റിയില്ന്ന് വാങ്ങുന്നതാണ് അധികവും ഉണ്ടാവുക പിന്നെ ഈ പഞ്ചായത്തില്നിന്ന് കൃഷി ഭവനില്നിന്ന് കിട്ടും പിന്നെ സ്കൂളില്നിന്ന് ജൂണ് പതിനഞ്ചാംതി അങ്ങനെ കുട്ടികള് കൊണ്ടുവരും അങ്ങനെക്കെ ഉണ്ടാക്കും പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പേ എവിടെ കണ്ടാലും അവിടുന്നൊക്കെ കൊണ്ടുവരും അങ്ങനെക്കെ വച്ചിട്ടുണ്ടാകും പിന്നെ ഇൻ്റെ അനുജന് ഒന്നൊന്നര ചെടീൻ്റെ പൂതിയാണ് അവനതിൻറ്റൊരാളാണ് അവിടുന്ന് അവന് ഇഷ്ടംപോലെ ഉണ്ടാക്കും അവിടുന്ന് കുറേ പൊക്കും എന്നിട്ടിവടെ കൊണ്ടുവന്നുണ്ടാക്കും ഞാൻ ഇവിടകൊണ്ടുവന്ന് ഉണ്ടാക്കുമ്പോള് ആൾക്കാര് റോഡില്കൂടെ പോകുമ്പോള് ഓല് കണ്ട്ങ്ങാണ്ട് ഓലെന്നോട് വാങ്ങി കൊണ്ടുപോകും അതേപോലെ ഞാനും അങ്ങനെ വാങ്ങി വാങ്ങിപ്പിച്ചു ആരോട് കണ്ടാല് ആരേക്കെന്നും ചെടി വാങ്ങും പിന്നെ യു ട്യൂബില്നിന്ന് ഓൺലൈൻ വഴി അങ്ങനെ ട്യൂബിലൊക്കെ കണ്ട് കണ്ട് ഓൺലൈനിലിങ്ങനെ ഓർഡര് ചെയ്ത്കാണ്ട് അങ്ങനെ വരുത്തും പലേ മാതിരി ഉണ്ടാക്കും കൂടുതള് ചെടി മാങ്ങ്യാണ്ട് ഉണ്ടാക്കുന്ന ഈ നേഴ്സറികളില്നിന്ന് ഇങ്ങനെ പോകുമ്പോഴൊക്കെ എവിടെക്കേലും പോകുമ്പളക്കെ ഇങ്ങനെ കാണുമ്പോള് ചെടി കാണുമ്പോള് ഭയങ്കര ഇതാണ് ഇഷ്ടമാണ് അപ്പോള് അത് കിട്ടിയേ മതിയാവൂ അപ്പോള് അങ്ങനെ വാങ്ങും അങ്ങനെക്കെ ഉണ്ടാക്കും ഇൻറ്റവിടെ കുറേ ചെടികളുണ്ട് കുറേ ഇഷ്ടം പോലെയുണ്ട് റോട്ടുകൂടേക്കേ പോകുമ്പോള് ആൾക്കാര് കണ്ട് കാണ്ട് വന്നാണ്ട് ചോദിക്കലുണ്ട് ചെടി തരുമോ എന്ന് ഉണ്ടാക്കി തരുമോ എന്നും ചോദിക്കും അങ്ങെനെക്കെണ്ടാക്കും പിന്നെ ഓലെന്നോട് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയതാണ് എന്താ വളമിട്ടത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ ഇത് ഇതാക്കി കൊണ്ട് പോകുന്നേന്നൊക്കെ ചോദിക്കും അപ്പോള് കൂട്ടത്തില് സോപ്പിട്ടുകൊണ്ട് ചെടിയും ചോദിക്കും അങ്ങനെക്കങ്ങനെ ഇതാക്കും